എനിക്ക് ഭക്തിഗാനത്തോടാണ് കൂടുതൽ താല്പര്യം പിന്നെ ഈശോടെ മുൾമുടി അണിഞ്ഞു കൊണ്ടീശോന്നുള്ളൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനേപ്പോഴുമത് പാടാറുണ്ട് അത് പാടുമ്പോഴത്തേക്ക് നമുക്ക് ഈശോടെ ആ ഒരു പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമുള്ള ആ ഈശോ കാൽവരിയിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞുവരും ആ പാട്ട് പാടുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ കണ്ണുനീർ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുകി നമുക്കൊരുപാട് വിഷമങ്ങൾ അപ്പം വരും പിന്നെ നമുക്ക് വേണ്ടിയാണല്ലോ ഈശോ സഹിച്ചതെന്നോർത്ത് നമ്മൾ നമുക്ക് വേണ്ടിയാണീശോ മുൾമുടി അണിഞ്ഞതും കുരിശിൽ മരിച്ചതും എന്നെല്ലാം ഓർക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയെല്ലാം ഈശോ കുരിശിൽ മരിച്ചുവെന്ന് നമ്മൾ ആവുമ്പം നമുക്ക് ആ മനസ്സിലൊരു ഒരു വിഷമം വിഷമത്തിൻ്റെ ഇതെല്ലാം മാറി ഒരു ശാന്തതയും എല്ലാം ഉണ്ടാവും പിന്നെ പാട്ടുമാണ് നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു ശാന്തതയും നല്ല കുളിർമയും നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനോ അരിശപ്പെടാനോ ഒന്നും സാധിക്കാതെ കുഞ്ഞുങ്ങളോടാണേലും നമുക്ക് ദേഷ്യവും അരിശമൊക്കെ തോന്നുമ്പോൾ നമ്മളീ പാട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ മൂളും എന്തെങ്കിലും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും നമ്മളപ്പം ഈ പാട്ട് മനസ്സിലേയ്ക്ക് കൊണ്ടു വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ദേഷ്യം വരാനുള്ള ആ അത് മാറി ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാൻ സാധിക്കും മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി ആ ഒരു നമ്മുടെ പാപങ്ങൾക്കാണല്ലോ ഈശോ കുരിശിൽ തറച്ച് ഈശോ മുൾമുടി അണിഞ്ഞതും കുരിശിൽ മരിച്ചത് അതൊക്കെ നമ്മുടെ ആ മുഖത്തൊരു മുത്തം നൽകുന്നതായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ആ ഒരു പാട്ട് പാടുമ്പോൾ അല്ലേ ഏത് പാട്ടാണേലും ഭക്തിഗാനത്തോടാണെനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ഏത് പാട്ടാണേൽ നമ്മൾ പാടുമ്പോൾ നമുക്കതിനുള്ള ഒരു മനസ്സിനൊരു കുളിർമ്മയും എല്ലാം നമുക്ക് അനുഭവപ്പെടാറുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളോടാണേലും നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം നമ്മൾ കൂടുതൽ പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലുന്ന നമ്മളൊരു നൂറ് പ്രാർത്ഥന ചൊല്ലുന്ന അനുഭവമാണ് ഒരു പാട്ട് പാടിയാൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പാട്ടിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ പാട്ട് പാടുമ്പോൾ നമുക്ക് പിന്നെ ഈശോയോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും ഈശോയിലേക്ക് കൂടുതൽ അടുത്ത് നമുക്ക് തെറ്റുകളിലേക്ക് വീഴാതെ നല്ല വഴിയിലൂടെ നടക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നന്മ നല്ല മാർഗ്ഗത്തിലൂടെ നയിക്കാനും നമുക്ക് സാധിക്കുന്നത് ഈ പാട്ട് പാടുമ്പോഴാണ് പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട് പിന്നെ പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം പാട്ട് കുഞ്ഞിലെ മുതൽ പാട്ടുകൾ കേൾക്കാനും അത് പാടാനും മറ്റുള്ളവരോട് മറ്റുള്ളവരെ പാടി അത് കേൾപ്പിക്കാനുമൊക്കെ ഒത്തിരി എനിക്ക് ഇഷ്ടമാണ് ഇപ്പം കുഞ്ഞുങ്ങളാണേലും പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഈ രീതിയിലാണ് നമ്മളതിൻ്റെ ട്യൂണിതാണെന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് അവരെ പറഞ്ഞുകൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് നമുക്ക് പാട്ട് പാടാനുള്ള ആ ഒരു ചെറിയൊരു കഴിവ് ചെറിയൊരു കഴിവ് അത് തന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളോട് പറയാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങളോടാണേലും പാട്ട് പഠിപ്പിക്കാനും അവരെ പാടി കേൾപ്പിക്കാനും ഈശോടെ ആരാധനയുടെ പാട്ടുകൾ ആരാധനയുടെ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ നമുക്ക് ഈശോ നമ്മുടെ ഇടത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് പിന്നെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി ആ പാട്ട് കേൾക്കുമ്പം നമുക്ക് നമ്മുടെ മോചനത്തിനായിട്ടാണ് ഈശോ കുരിശിൽ തറച്ച് ആ മുൾമുടി അണിഞ്ഞത് എന്ന് നമ്മോട് കേൾക്കാറുണ്ട് എനിക്കേറ്റോം ഇഷ്ടപ്പെട്ട പാട്ടിൽ ഇച്ചിരി ഞാൻ പാടാം മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻമുഖത്തൊരു മുത്തം നൽകി മുള്ളുകൾ എൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി സ്നേഹത്തോടെകിയ മുത്തം വേദനയായി മാറി അപ്പോൾ സ്നേഹത്തോടെ ഏകിയ മുത്തം വേദനയായി മാറി അപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ അതിൻ പേരല്ലോ സഹനം അതിൻ പേരല്ലോ സഹനം മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി മുള്ളുകൾ എൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി